ഹലോ ആ ഡി ആധാറ് നമുക്ക് ശമ്പളം ഇത് ചെയ്യുന്നതിന് കൂട്ടി കിട്ടുന്നതിന് വേണ്ടീട്ടെ ആധാറ് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ നീ ചെയ്തോ ആ അതും ഇല്ലെങ്കി ശമ്പളം കിട്ടത്തില്ലല്ലോ നമക്ക് വീട്ടിലും ബുദ്ധിമുട്ടക്കെയല്ലെ കാരണം സമയത്ത് കിട്ടീല്ലെങ്കില് അത് ഏതാണ് പ്രസ്നമാവത്തില്ലെ പിന്നെ ഒര് ദോസം ലീവ് എടുക്കുകേം മേണോല്ലൊ നമ്മളാ അക്ഷയായി ചെന്ന് ഇതെല്ലാം കൊടുക്കണ്ടേ അയിന് ലീവും എടുക്കണം പിന്നെ നീ എപ്പം പോയായിരുന്നു ആ എനിക്ക് വീട്ടിൽ പോവാനായിട്ട് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് പിള്ളേർ പ ക്ല ക്ലാസ് തുടങ്ങി അപ്പം അതിൻറ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ലീവെടുക്കണം ലീവ് എടുത്ത് വേണം പോകാനായിട്ട് അക്ഷയായി അവിടെ ചെന്ന് തിരക്കായിരിക്കും ഭയങ്കര തിരക്കില്ലാത്ത സമയം നോക്കി എപ്പോഴാന്ന് വെച്ചാൽ പോകണം പിന്നെ നീ എന്നത്തെ സമയവാ ആളൊത്ത് ഒരുപാട് ഉണ്ടായിരുന്നോ നിനക്ക് പെട്ടന്ന് കിട്ടിയോ ആ നീ ഉജ് പോയപ്പം എന്നെ കൂടൊന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ ആ ആ പിന്നെ ആധാറ് ലിങ്കു ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് തോന്നി അല്ലെ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അത് അത്രേം ഞാൻ കാര്യമാക്കിയില്ല ഇപ്പോഴാണ് മനസ്സിലായത് ശമ്പളം കിട്ടണമെങ്കിൽ ആധാറ് ലിങ്ക് ചെയ്യണം എന്നുള്ളത് പിന്നെ നമ്മുടെ ഉപജീവന മാർഗമല്ലേ ശമ്പളം കിട്ടീല്ലെങ്കിൽ നമുക്ക് എന്തെയ്യാൻ പറ്റും പിള്ളാരെ പഠിപ്പിക്കയക്കെ വേണ്ടെ പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പം പണിയും കുറവാണ് അപ്പം ഈ ആഴ്ച തന്നെ എന്തായാലും അക്ഷയെ പോയി ലിങ്ക് ചെയ്യാം ആ പിന്നെ നിനക്കെന്തൊണ്ട് വേറെ നമ്മുടെ ഓഫീസിലുള്ളവരൊക്കെ ചെയ്തോ ലിങ്ക് ചെയ്തോ ആ പൈസ പൈസ കിട്ടിയോ ആ സാലറി എനിക്കും ആ കിട്ടി പക്ഷേ വേറെ ഇത്തിരി അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനിയത്തീടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് പൈസ ചിലവൊക്കെ ഉണ്ടായിരുന്നു ആ ഇനീപ്പം ഈ ആഴ്ചത്തന്നെ ലീവെടുത്ത് പോണമെന്നുള്ളതാണ് അന്ന് ലിങ്ക് ചെയ്യാൻ മേണ്ടീട്ട് ആ മറ്റെവരൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവരും ലിങ്ക് കഴിഞ്ഞ ദിവസം പോയി ചെയ്തിരുന്ന് എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയി അത്കൊണ്ടാണ് എന്തായാലും ഈ ആഴ്ചത്തന്നെ ചെയ്യാം പോയി